അഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പത്ത് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് മുപ്പത് ഏഴ് രണ്ടായിരം